ഹലോ ഈ ഗുഡ് ഈവനിംഗ് ടി വി എസിൻ്റെ ഷോറൂം അല്ലേ അത് എനിക്കൊരു സ്കൂട്ടി മേടിക്കാനായിരുന്നു എക്സ് എൽ ടു ഹൺഡ്രഡ് ആ അതിന് റേറ്റ് എങ്ങനെയാ വരണത് ആഹ് ആണല്ലേ അതെ അതെ ഓഫർ ഉണ്ടല്ലേ അപ്പം എങ്ങനെയാ ഓഫർ ഓഫർ പ്രൈസ് ആണോ ഈ എൺപതൊക്കെ വരണത് റേറ്റ് ആ ആണല്ലേ ആണല്ലേ അപ്പം അത് നമ്മൾ ഓഫറിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വെച്ചാ ഇൻസ്റ്റാൾമെൻറ് എത്ര വെച്ച് അടക്കേണ്ടി വരും അടയ്ക്കേണ്ടി വരും അല്ലേ ആ മാസം അല്ലേ അപ്പം അത് എത്ര വർഷം ആ ആണല്ലേ എത്ര മൂന്ന് വർഷം കൊണ്ട് തീർക്കാമല്ലേ മൈലേജ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടല്ലേ ആ അപ്പം നല്ല നല്ല ഇതുതന്നെ കബരീൻ്റെ തന്നെയാണല്ലേ

എനിക്ക് ആണോ എനിക്കൊരു യെല്ലോ കളറിനോടാ താല്പര്യം ഒരു ലൈറ്റ് യെല്ലോ കളർ അതെ അതെ ഉണ്ടല്ലേ അവൈലബിൾ ആണല്ലേ ആ ആ പിന്നെ നമ്മൾ വരുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് കൊണ്ടുവരണം ആ ആ മൂന്ന് ഫോട്ടോസ് വേണം അല്ലേ ആ പിന്നെ നിർബന്ധമാണല്ലേ ആ ആ ആ ഒന്ന് വേണം പിന്നെ മൂന്ന് ഫോട്ടോസ് ആ അത് മാത്രം മതിയല്ലോ അല്ലേ ആ നമുക്ക് ആ ആ ആ കിട്ടുമല്ലേ ഇൻസ്റ്റാൾമെൻറ് അതിനനുരിച്ച് കിട്ടുമല്ലേ ആ ആ അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഓഫീസെവിടെയാ വരുന്നത് വൈറ്റിൻമേലാണല്ലേ വരുന്നത് ആ ആണല്ലേ ഓക്കെ വൈറ്റിലാ ആ ആ വരുമല്ലേ അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഈ മാസം തന്നെ വരാം രണ്ട് ദിവസത്തിനുള്ളിൽ വരാം അപ്പം നമ്മൾ ആദ്യം തൊട ആദ്യം സ്റ്റാർട്ടിങ്ങ് കുറച്ച് പൈസ നമ്മൾ അടയ്ക്കണമല്ലോ ആ ചെയ്താൽ മതിയല്ലേ ബാക്കി നമുക്ക് ഇൻസ്റ്റൾമെൻറ് ആക്കാമല്ലേ ആ അപ്പം നമുക്ക് വെച്ചാൽ റെഡി ക്യാഷും ചെയ്യാൻ പറ്റൂല്ലേ ഇൻസ്റ്റാൾമെൻറായിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് അവൈലബിൾ അപ്പം ഞാൻ ഹസ്ബൻറിനേയും കൂട്ടിയിട്ട് വരാം ഈ രണ്ടു ദിവസത്തിനുള്ളിൽ വരാം അപ്പം ആ ആ വരാം വരാം വരാം ഈ മാസം തന്നെ വരാം അപ്പം പിന്നെ വേറെ ഫൊർമാൽറ്റീസ് ഒന്നും ഇല്ലല്ലോ അല്ലേ ആ മൂന്ന് ഫോട്ടോസും ആ അത് മസ്റ്റാണല്ലേ ആ അപ്പം വരാം ആ അത് നിങ്ങൾക്ക് പിന്നെ വേറെന്തൊക്കെ നിങ്ങൾ വണ്ടികൾ ചെയ്യുന്നുണ്ട് അവിടെ സ്കൂട്ടിയുടെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ബൈക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ ഹസ്ബൻഡിന് നോക്കാനായിട്ട് ഉണ്ടല്ലേ ആ ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ ആണല്ലേ ഓക്കെ അപ്പോൾ ഞങ്ങൾ വരാം കേട്ടോ ഈ അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ ആ ആ ശരി മാം ഓക്കെ മാം ആ ഓക്കെ മാം താങ്ക് യൂ താങ്ക് യൂ ഓക്കെ